ഒന്ന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് പതിനഞ്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഇരുപത്താറ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് പത്ത് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട്